ഒരു വസ്ത്രം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ടൂളുകൾ ആവശ്യമാണ് അതിൽ പ്രധാനമായിട്ടും വേണ്ടത് ആദ്യം നമുക്കൊരു ഇഞ്ച് ടാപ്പ് വേണം അതായത് നമ്മളിപ്പോൾ ഡ്രസ്സ് ഏത് ഡ്രസ്സാണെങ്കിലും നമ്മളത് അളവ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പം ഈ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പ് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ് അതുപോലെ സിസർ കത്രിക നമ്മൾ ഏത് ഡ്രസ്സാണെങ്കിലും അളവെടുത്തിട്ടത് കട്ട് ചെയ്യണമെങ്കിൽ ഒരു കത്രികയും ഇമ്പോർട്ടൻറ്റാണ് പിന്നെ ട്രിമ്മറ് ചോക്ക് പെൻസില് ഇതെല്ലാം അത്യാവശ്യമാണ് ട്രിമ്മർ എന്ന് പറയുന്നത് നമ്മൾ നൂലുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ട്രിമ്മറ് അതായത് ചോക്ക് ഇപ്പം നമ്മൾ ഡ്രെസ്സുകൾ എന്താ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളീ ടാപ്പിൽ നമ്മൾ അളവെടുക്കുമ്പോൾ അത് നമ്മളൊരു ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യും അതുപോലെ പെൻസിലും നമ്മൾ മാർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ആ മാർക്ക് വെച്ചിട്ടാണ് മാർക്കിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാറുള്ളത് അതുപോലെ സൂചി സൂചിയാണെങ്കിലും പല തരം സൂചിയുണ്ട് അതായത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങിനൊക്കെ ചെറിയ സൂചി ചെറുതായിട്ട് തുന്നാനൊക്കെ ഉപയോഗിക്കുന്നത് അതേപോലെ ചില ക്ലോത്തിനൊന്നും ചെറിയ ഹോളുള്ള സൂചികൾ പറ്റൂല അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വലിയ സൂചി അങ്ങനെ രണ്ട് സൈസിലുള്ള സൂചി നമുക്ക് അത്യാവശ്യമാണ് പിന്നെ ഒരു സെഡ് സ്ക്വയറ് വേണം അതായത് നമുക്ക് ഈ സൈഡൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഉള്ളിലുള്ള വർക്കുകൾ ഇതിൻ്റെയൊക്കെ സൈഡ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയറ് വർക്ക് ആക്കാൻ വേണ്ടിയിട്ടും അങ്ങനൊക്കെ യൂസ് ചെയ്യുന്നതാണ് സെഡ് സ്ക്വയറ് അതാതുപോലെ ഫ്രഞ്ച് കർവ് സെറ്റ് അതായത് ഡിഫ്രൻറ് ഡിസൈൻസ് നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റാണ് ഫ്രഞ്ച് കർവ് സെറ്റ് പിന്നെ ട്രേസിംഗ് വീല് അതായത് ബ്ലൗസിലൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസിലൊക്കെ ഇതാക്കിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് ട്രേസിംഗ് വീല് അതേപോലെ അതൊരു തുണിയിൽനിന്ന് നമ്മൾ മറ്റൊരു തുണിയിലേക്ക് മാറ്റി വരക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ട്രേസിംഗ് വീല് പിന്നെ നമുക്ക് വേണ്ടത് സ്ക്വയർ സ്കെയില് വേണം അതായത് നമ്മൾ എൻഡിൽ വെച്ചിട്ട് ഓരോ തുണി അതിൻ്റെ എൻറിൽ വെച്ചിട്ട് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്ക്വയർ സ്കെയില് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ ഈ സ്ലീവൊക്കെ കർവ് ആയിട്ട് വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ക്വയർ സ്കെയില് പിന്നെ സ്ലീവ് കെയറ് അതായത് ഫുൾ സ്ലീവ് അത് നമുക്ക് ഷേയിപ്പാക്കി വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ലീവ് കർവ് അതുപോലെ ഹിപ്പ് കർവ് ലെഗ് കർവ് പൈപ്പിംഗ് ത്രെഡ് ഇതെല്ലാം നമുക്ക് അത്യാവശ്യമായി സ്റ്റിച്ചിങ്ങിന് വേണ്ട തൂ ടൂൾസാണ് പൈപ്പിംഗ് ത്രെഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ഡ്രെസ്സിനും ചിലപ്പോൾ നമ്മളതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ത്രെഡ് വർക്ക് ചെയ്യാറുണ്ട് അപ്പം ത്രെഡ് നമ്മൾ പല കളറിൽ യൂസ് ചെയ്യുന്നുണ്ട് ഡിഫറൻറ് കളറിലുള്ള ത്രെഡ് എന്തായാലും സ്റ്റിച്ചിങ്ങിന് അത്യാവശ്യമാണ് ഇപ്പോൾ പല ഡിസൈനിലുള്ള വർക്കുകളൊക്കെ ആയത് കൊണ്ട് അതിന് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിന് വേണ്ട ത്രെഡ് അതേപോലെ പേള് വേണം അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിന് അത്യാവശ്യമാണ് ഏംഗർ ത്രെഡ് ഉണ്ട് അതായത് ഹാൻഡ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ത്രെഡ് ആണ് ആംഗർ ത്രെഡ് ആ ത്രഡ് വേണം അതേപോലെ ഒരു എംബ്രോയ്ഡറി ഫ്രെയിമ് വേണം പല ഇഞ്ചസിൽ എംബ്രോയിഡറി ഫ്രെയിമ് കിട്ടും അത് നമ്മൾ എംബ്രോയിഡറി ഫ്രെയിമ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻസ് ചെയ്യുക അതുപോലെ കളർ ത്രെഡ് ട്യുലിപ്പ് ആരി നീഡ്ല് ഇതെല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റിച്ചിങ്ങ് ടൂൾസാണ്